ഹലോ ഞാനിന്ന് സംസാരിക്കാൻ പോവുന്നത് ബൈക്കിങ്ങിനെക്കുറിച്ചാണ് ബൈക്കിങ് എനിക്ക് ബൈക്കിങ്ങിനോട് ആദ്യം വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ബൈക്കിങ്ങെന്നു പറയണത് ആൺകുട്ടികൾക്ക് മാത്രമാണ് എന്നുള്ളതായിരുന്നു എൻ്റെയൊരു ധാരണ പിന്നീട് അതിനോടുള്ളൊരു ക്രൈസിങ് തോന്നി അത് ക്രൈസിങ്ങ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രചോദനം അതിനോടുള്ള പ്രചോദനം ലഭിച്ചത് എൻ്റെ കസിൻസിനിൽ നിന്നാണ് അതായത് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അതൊരു പെൺകുട്ടിയായിരുന്നു അപ്പം ആ പെൺകുട്ടി ഇങ്ങനെ ബൈക്ക് ഓടിച്ചപ്പം അവളുടെ ഒരു എക്സ്പീരിയൻസ് എന്നോട് ഷെയറ് ചെയ്തായിരുന്നു ബൈക്കിങ്ങ് നല്ലൊരു ഇതാണ് അങ്ങനെയാണ് നല്ലതാണ് ഓടിച്ചാൽ അങ്ങനെയൊരു അവളുടെയൊരു എക്സ്പീരിയൻസ് ബൈക്കിങ് കൊണ്ടു ബൈക്കിങ് ഉപയോഗിച്ചത് കൊണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു ആ കുട്ടിയെന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് എനിക്ക് ബൈക്കിങ്ങിനോടുള്ളൊരു ബൈക്ക് ഓടിക്കണം എന്നുള്ളതിനോടുള്ളൊരു ക്രൈയ്സ് തുടങ്ങിയത് തന്നെ അപ്പം എനിക്ക് പ്രചോദനം നൽകിയത് ബൈക്കിങ്ങ് എന്ന് ബൈക്കിങ് ആരംഭിക്കാൻ എനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ ഒരു കസിനായിരുന്നു കാരണം ആ കുട്ടി ഇങ്ങനെ ബൈക്കിങ്ങ് ഓടിച്ച് അവളുടെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴുള്ളൊരു പ്രചോദനമാണ് ബൈക്കിങ്ങ് ആരംഭിക്കാനുണ്ടായൊരു കാരണം പിന്ന വർഷങ്ങൾ കഴിയേ അതിനോടുള്ള ക്രേസിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു പിന്നെ അതിനി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തോളം ഒരു ഒന്നൊന്നര വർഷത്തോളം കഴിഞ്ഞപ്പോഴേക്കും ബൈക്കിങ്ങ് ചെയ്യാനായിട്ട് തുടങ്ങി പയ്യെപ്പയ്യെ അത് ഞാൻ എന്ത് ചെയ്തു പഠിച്ച് പഠി ച്ച് വരാനായിട്ട് തുടങ്ങി അപ്പം അതിനോടുള്ള ക്രേസ് എന്തുചെയ്തു കൂടിക്കൂടി വന്നു മറ്റുള്ളതിനോടുള്ള ക്രൈസ് കുറഞ്ഞു വരികയും ഇതിനോടുള്ള ബൈക്കിങ്ങിനോടുള്ള ക്രൈസ് കൂടിക്കൂടി വരികയും ചെയ്താ അതിനോടു കൂടുതൽ അടുത്തപ്പോഴാണ് ബൈക്കിങ്ങിനോട് കൂടുതൽ അടുത്തപ്പോഴാണ് അതിനോട് എന്താണ് അതിനോട് ഇത്ര ക്രൈസ് തോന്നാനുള്ള കാരണം ഒരാൾ ചോദിച്ചുകഴിഞ്ഞാൽ അതിനോടുള്ള ക്രൈയ്സ് കൂടാനുള്ള കാരണം അതിനോട് കൂടുതൽ അടുത്തപ്പോഴാണ് നമ്മൾ ഒരു ബൈക്കിങ്ങായി ബൈക്കിങ്ങെന്ന് പറയുമ്പോൾ അതിനോട് നമ്മൾ കൂടുതലടുക്കുമ്പോഴാണ് നമുക്ക് ഒരു സാധനത്തിനോട് കൂടുതലായിട്ട് ക്രൈസ് നമുക്ക് വരാനായിട്ട് സാധിക്കുന്നത് അപ്പം ആ അതിനോടുള്ള വർഷങ്ങൾ കഴിയേ കഴിയേ ഓരോ വർഷം കഴിയുന്തോറും എനിക്കതിനോടുള്ള ക്രൈസ് കൂടിക്കൂടിയേ വന്നിട്ടുള്ളു ഒരിക്കലും കുറഞ്ഞു വന്നിട്ടില്ല കൂടിക്കൂടി അപ്പം ചെറുതിൽ നിന്നും വലുതിലേക്ക് ഓടിക്കണമെന്നുള്ളൊരു മനോഭാവത്തിലാണ് ഞാനിപ്പോൾ ആദ്യം ചെറിയ ചെറിയ സാധാ ബൈക്കുകളായിരുന്നു പിന്നെ പിന്നെ ബുള്ളറ്റ് അതുപോലുള്ള വല്യ വല്യ ബൈക്കുകളോടൊക്കെയുള്ളൊരു അഭിനിവേശം മനോഭാവത്തിലായി തുടങ്ങി ഇപ്പം അതിനോടുള്ള ക്രീസ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലും വലിയതൊക്കെയുണ്ടെങ്കിൽ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെയൊരാഗ്രഹം അപ്പം ഈ ബൈക്കിങ് ആരംഭിക്കാനുള്ള പ്രചോദനം നൽകിയിരിക്കുന്നത് എൻ്റെയൊരു കസിൻ കുട്ടിയാണ് ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് കാരണമാണ് എനിക്ക് ബൈക്കിങ് ആരംഭിക്കാനുള്ള പ്രചോദനം ലഭിച്ചത്